വയനാട് ജില്ലയിൽ ഇഷ്ടംപോലെ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും പോവുന്നത് വള്ളിയൂർക്കാവ് അമ്പലം പിന്നെ അമ്മ തിരുനെല്ലി അമ്പലം അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ പോവാറുണ്ട് പിന്നെ അല്ലാതെ രീതിയിലുള്ള ചെറിയ തിറ മഹോത്സവങ്ങൾ നടക്കുന്ന അമ്പലങ്ങൾ ചെലിയ ചെറിയ രീതിയിലുള്ള കുടിയൻ അങ്ങനത്തെ അങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പൂവാറുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള അതായത് ഉത്സവങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നെയാണ് നമ്മുടെ വയനാട്ടിലെ മെയിൻ ഉത്സവമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വള്ളിയൂർക്കാവിൽ നടക്കുന്ന ഉത്സവമാണ് അതാണ് കുറച്ചും കൂടെ ഗംഭീരമായിട്ട് നടത്തുന്നത് മാർച്ച് പതിനാലിനാണ് തുടങ്ങുന്നത് അത് ഇരുപത്തെട്ടാന്തി വരെ നീണ്ടുനിൽക്കുന്ന ഉത്സവമാണ് അപ്പോൾ ഇരുപത്തെട്ടാന്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താലം അങ്ങനത്തെ താലവും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഉത്സവമാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഉത്സവമാണ് മെയിനായിട്ട് ഞാൻ അത് കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടക്കൽ ഗുഹ ഉത്സവമെന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം നടക്കുന്നുണ്ട് കാരണം അവിടത്തെ ഒരു ശിലാ സ്ഥാ ഉണ്ടാക്കിയ ഒരു ടൈമിലാണ് എടക്കൽ ഗുഹ ഉത്സവം കാര്യം കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നെ അഷ്ടമി രോഹിണിന്ന് പറഞ്ഞിട്ടൊരു ഒരു നാളിൽ അങ്ങനത്തെ ഒരു ഒരു അവരുടെ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഉള്ളത് മകരസംക്രാന്തി അങ്ങനത്തെ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട് ഇതൊക്കെ നല്ല നല്ല രീതിയിലുള്ള നടത്തുന്ന പരിപാടികളാണ്